ഇന്ന് ഞാൻ സുപ്രധാന തീരുമാനം എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ഞാൻ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു പഠിച്ചു പഠിച്ചത് ഒരു എഴുപത് ശതമാനം മാർക്കോടെയാണ് ഞാന് പ്ലസ് ടു പാസായത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഇപ്പോൾ എന്തോ പഠിപ്പിക്കേണ്ടത് അതായത് എന്താ പഠിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയി പോയി ഡിഗ്രിക്ക് പോകണോ അതായത് ഡിഗ്രി ബി എസ് സി ക്ക് പോകണോ അതോ പിന്നെ നഴ്സിങ്ങിന് പോകണോ അങ്ങനെ പല ഡൌട്ട് ആയിരുന്നു അല്ലെങ്കിൽ എം ബി ബി എസ് ന് പോകണോ അങ്ങനെയൊക്കെ ഡൌട്ടായിരുന്നു അപ്പം പിന്നെ വീട്ടുകാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് എൻ്റെ അമ്മയും അച്ചാച്ചനും പറയുന്നതാണ് മെയിൻ ആയിട്ടും ഞാൻ ഉപദേശമായി എടുക്കാറുള്ളു അപ്പം അവര് എന്നോട് പറഞ്ഞു പിന്നെ നഴ്സിംഗിന് പൊക്കോ നഴ്സിംഗ് ആണ് നല്ലത് പെട്ടെന്ന് ജോലി കിട്ടാൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി ചെയ്യാനും എല്ലാം നഴ്സിംഗ് ആണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കൊണ്ട്തന്നെ പിന്നെ എനിക്ക് അന്നാണ് ഞാൻ ഒരു സുപ്രധാന തീരുമാനം എടുത്തത് അപ്പോൾ ഞാൻ അവര് പറഞ്ഞത് പോലെ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ നഴ്സിംഗ് പഠിച്ചു ഇപ്പോൾ ഞാൻ നേഴ്സ് ആണ്